എൻ്റെ സ്ഥലത്തു എന്നു വച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നതെന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടെന്നു വച്ചു കഴിഞ്ഞാൽ ഈ പൈസയുള്ളവർ ഈ സ്കൂൾ ബസ്സിൽ പൈസ കൊടുത്തു വിടും അതേപോലെ ഓട്ടോറിക്ഷ ഏൽപ്പിക്കും അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ അല്ലാത്തവർ അച്ഛനും അമ്മയും കൊണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഗവൺമെൻ്റ് സ്കൂൾ ആയാലും എവിടെ ആയാലും പൈസയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കാനൊക്കെ പോകുന്നത് ഇവിടെ എന്നു വച്ചു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് കിലോമീറ്ററ് നടന്നിട്ട് പോയാൽ സ്കൂൾ എത്തുള്ളൂ അപ്പോൾ പൈസ ഇല്ലാത്തവർ ആയാലും പാവപ്പെട്ടവരൊക്കെ കൂടുതലും ഈ റോഡ് മാർഗ മായിട്ട് നടന്നിട്ടാണ് പോകുന്നത് അതും മര്യാദക്ക് ഒരു റോഡ് പോലും ഇല്ല ഈ നാട്ടിൽ നമ്മളെ വയനാടും കൂടെ ആയത് കാരണം ട്രെയിനോ ഫ്ലൈറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടും ഇത് പിന്നേ അതു മാത്രമല്ല നമുക്ക് ഈ നമുക്ക് ഈ ചെറിയ വാഹനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോവാത്താ സ്കൂളും കൂടിയാണ് പിന്നെ നമക്ക് കൂടുതലും സ്കൂൾ ബസ്സൊക്കെയാണ് അതും പൈസ ഇല്ലാത്തവരെക്കെ പിള്ളേരന്ന് വെച്ച് കഴിഞ്ഞാ അച്ഛൻ്റെ കൂടെയും അമ്മേൻ്റെ കൂടേക്കെ പോക്കും പിന്നെ ചെറിയ പിള്ളേരെ അമ്മ മാരും അച്ഛമാരും കൊണ്ടാക്കലൊക്കെയാണ് പിന്നെ അതേപോലെ ഞങ്ങളൊക്കെ പോയ സമയത്ത് നടന്ന് പോയിക്കൊണ്ടൊക്കാണ് ഇപ്പം കൊറച്ച് പുരോഗം വെച്ചിട്ട്ണ്ടെങ്കിലും നമക്ക് കൊറച്ചും കൂടി വയ്ക്കണം നമുക്ക് ഈ ബസ്സുകാർ വാങ്ങുന്ന ഫീസും ഇതൊക്കെ കുറച്ചും കൂടി കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസക്കാർ മാത്രം അതിൽ പോയിട്ട് കാര്യമില്ലല്ലോ ചെറിയ പാവപ്പെട്ടവരും പോവാൻ പറ്റിയ രീതിക്കുള്ള പൈസ ആക്കുകയാണെങ്കിലും മാസം ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്കും കൂടി പിള്ളേരെ കയറ്റി വിടമായിരുന്നു